ഞാൻ വാർത്തകൾ വായിക്കുന്നതു മാത്രമല്ല വായിക്കുന്നതു പത്രത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് ആദ്യം പ്രധാനപ്പെട്ട വാർത്തകൾ മുതൽ ഏറ്റവും അവസാനം വരെ വരുന്ന നമ്മുടെ സ്പോർട്സ് കാര്യങ്ങൾ വരെ നോക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പസിലുകളും കോമിക്സും താൽപര്യമാണ് പൊതുവേ കോമിക്സ് ഇഷ്ടമുള്ള ആളാണ് ഞാൻ ഞാനിവിടെ മനോരമ ദേവിക ഒക്കെ വായി വരുത്താറുണ്ട് തന്നെയുമല്ല കടകളിൽ പോയിരുന്ന് ചായ കടകളിലൊക്കെ പോയിരുന്ന് ഞാൻ പേപ്പറുകൾ നോക്കാറുണ്ട് കാണുന്ന വാർത്തളൊക്കെ നോക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ് വീട്ടിൽ എനിക്ക് അമ്മയുണ്ട് അമ്മയും കാര്യമായി പത്രങ്ങളൊക്കെ നോക്കാറുണ്ട് ഇപ്പോൾ പത്രങ്ങൾ കൂടുതൽ പരസ്യ പരസ്യമാണ് അവർ കൂടുതലായിട്ട് താ താത്പര്യപ്പെടുന്നത് കുറേയേറെ പരസ്യത്തിൽ കൂടി സമ്പാദിക്കാമെന്ന് അവർ കരുതുന്നു വാർത്തകളൊക്കെ ഇപ്പോൾ പഴയ പോലെയുള്ള സത്യസന്ധമായ വാർത്തകൾ വളരെ കുറവാണ് രാഷ്ട്രീയവും ഒക്കെയാണ് അതിൽ രാഷ്ട്രീയത്തിൽ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും പത്രമാധ്യമങ്ങളെ സ്വാധീനിക്കാറുണ്ട് എങ്കിലും നമ്മൾ പത്രം ഇഷ്ടപ്പെടുന്നു ചെറുപ്പം മുതലേ നമ്മൾ പത്രത്തിനോടൊരു താത്പര്യം ആ ഇപ്പോഴുള്ള ഈ ന്യൂ ജനറേഷൻ മാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്ന കാലത്ത് നമുക്ക് ആകെയുള്ള ആശ്രയം എന്നു പറയുന്നത് പത്രങ്ങൾ വായിക്കുക എന്നുള്ളതു മാത്രമായിരുന്നു നമുക്ക് നാട്ടിൽ നിന്നുള്ള അറിവുകൾ കിട്ടാൻ ഈ ഒരു മാർഗ്ഗമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അതു കൊണ്ടു തന്നെ പത്രത്തോട് ചെറുപ്പം മുതലെ ഒരു സ്നേഹമാണ് ഞങ്ങൾ പ്രധാനമായിട്ടും വായിക്കുന്നത് ഇവിടെ ദീപികയാണ് സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടു വരുന്നത് ദീപിക പത്രത്തിലായതു കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വാർത്തകൾ സത്യസന്ധമായി പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെയാണ് നമുക്ക് ഇഷ്ടം ഇപ്പോൾ കൂടുതലും ടി വി അതുപോലെയുള്ള ന്യൂ ജൻ മാധ്യമങ്ങൾ വന്നതു കൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ വന്നതു കൊണ്ട് വാർത്തകൾ പത്രങ്ങൾ വായി പത്രം വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് പണ്ടു നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ പോകുമ്പോൾ ചായ കടകളിലും അതു പോലെ പീടിക തിണ്ണകളിലും ഒക്കെ ഇരുന്ന് നീണ്ട വളരെ സമയം എടുത്ത് വാർത്തകൾ വായിക്കുന്ന നമ്മുടെ പൂർവ്വീകരെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോളങ്ങനെയുള്ള ആ താത്പര്യം

എങ്കിലും പത്രത്തിനോട് ഒരു പണ്ട് മുതലേ ഒരു പ്രതിപത്യമുണ്ട് അതു തന്നെയുമല്ല പത്രത്തിനോടുള്ള താൽപര്യം എന്നു പറയുന്നത് വളരെയേറെ ജനങ്ങളുടെ ജീവനോപാധിയാണ് പത്രം എന്നു പറയുന്നതു കാരണം അത് പത്രം പേപ്പർ ഉണ്ടാക്കുന്ന പ്രക്രിയ തൊട്ട് വാർത്തകൾ കളക്ട് ചെയ്യുന്നവർ അതു വിതരണം ചെയ്യുന്നവർ അങ്ങനെ ഒരു വളരെയേറെ കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു ജീവനോപാധിയാണ് പത്രം എന്ന് പറയുന്നത് കോമിക്സ് നമുക്ക് ഇഷ്ടമാണ് പത്രം എന്നും നമ്മളുടെ എന്നും വായിക്കണമെന്നു തന്നെയാണ് നമ്മളുടെ ആഗ്രഹം വായിച്ച് വായിച്ച് വായിച്ചു വളരുന്ന തലമുറയിൽ തലമുറ തലമുറയാണ് നമ്മളാഗ്രഹിക്കുന്നത് എന്നാലിപ്പോൾ പണ്ടൊക്കെ ഒരു പത്രത്തിൻ്റെ വില അല്ല ഇന്ന് പത്രത്തിൻ്റേത് നമ്മൾ കാല കാലങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ജീവിത ചിലവുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് ഇതു നമുക്കൊരു പത്രത്തിൻ്റെ പൈസായും വളരെ കൂടുതലാണെന്നൊരഭിപ്രായം ഉണ്ട് സാധാരണക്കാരനു വായിക്കാൻ പറ്റാത്ത അപ്രാപ്യമായ രീതിയിൽ പത്രത്തിൻ്റെ ഒക്കെ വിലകളൊക്കെ കൂടിയിരിക്കുകയാണ് എങ്കിലും നമ്മൾ പത്രം ഇഷ്ടപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പത്രം എന്നു പറയുന്നത് രാവിലെ നമ്മൾ വളരെ ആകാംഷയോടെയാണ് പത്ര വണ്ടി നോക്കിയിരിക്കുക തലേ ദിവസത്തെ വാർത്തകളൊക്കെ ടി വിയിലും മറ്റുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും പത്രത്തിൽ കൂടി കാണുകയും വായിക്കുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക ഹരമാണ് അപ്പോൾ സത്യസന്ധമായ രീതിയിൽ വാർത്തകൾ നിറക്കുന്ന പത്രങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് വീട്ടിലെ എല്ലാവരും തന്നെ ഈ പത്ര വാർത്തകൾ വായിക്കാറുണ്ട് കുട്ടികളോടും വാർത്തകൾ വായിക്കുന്നതിനോട് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കൂടുതൽ കോമിക്സും ഒക്കെ ശ്രദ്ധിക്കാൻ കുട്ടികളോട് പറയാറുണ്ട് മറ്റു രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ കടന്നു പോകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റ് ദുഃസ്വഭാവങ്ങളൊക്കെ ഇല്ലാതായി കുട്ടികൾക്ക് സമൂഹത്തിനോട് പ്രതിപത്തിയുള്ള മക്കളായി വളരുവാൻ ഈ പത്രമാധ്യമങ്ങളൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട്